ഇപ്പോൾ ഇൻഷുറൻസ് പരിരക്ഷയില് പല അതായത് ഇപ്പോൾ ഗവൺമെന്റില് വരെ നമുക്ക് ആരോഗ്യ ഇൻഷൂറ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് കാരണം ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്നാൽ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടേണ്ട ഒരു ആശുപത്രിയാണ് പക്ഷേ അവിടെപോലും നമുക്ക് ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല കാരണം ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലാത്ത ആൾക്കാർക്ക് പോലും അവിടെ എമൗണ്ട് പേ ചെയ്യേണ്ട അവസ്ഥയാണ് അപ്പോൾ അത് നല്ല രീതിയില് ചെയ്യുവാണെങ്കില് നമുക്കിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയില് ഉള്ള ആക്സിഡൻ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ അത് ആരോഗ്യ ഇൻഷുറൻസിലേക്ക് ഇടുന്ന ഒരു അവസ്ഥ ആയിട്ടാണ് വരുന്നത് ഇപ്പോൾ ഈ ഗവൺമെന്റിനും ആരോഗ്യ ഇൻഷുറൻസിൻ്റെ അതായത് നമ്മളുടെ മോ സർക്കാര് അതായത് കേന്ദ്രസർക്കാരിൻ്റെ പൈസ അതിൽനിന്ന് കേരള സർക്കാര് പിഴിയുന്ന ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത് അപ്പോൾ ആനുകൂല്യങ്ങള് ലഭിക്കാറുണ്ടെങ്കിലും അനാവശ്യമായിട്ടാണ് ഇവരെല്ലാം ആനുകൂല്യങ്ങൾ എടുക്കുന്നത്